കണ്ണൂർ ജില്ലയിലെ പ്രധാന തൊഴിൽ അല്ലെങ്കിൽ ഉപജീവനമാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൃഷി തന്നെയാണ് ആളുകൾ സർക്കാർ ജോലിയോ സ്വകാര്യ ജോലികളോ ഇഷ്ടപ്പെടും എന്നതിനേക്കാൾ കൂടുതൽ കൃഷിയിലേക്ക് തന്നെയാണ് ആൾക്കാർ തിരിയുന്നത് ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള കീടനാശിനി തളിച്ചിട്ടുള്ള സാധനങ്ങൾ ഭക്ഷിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടുതന്നെ ആളുകൾ സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കി അത് ഭക്ഷിക്കുകയും അതുതന്നെ ഉപജീവനമാർഗം ആക്കുകയും ചെയ്യാറുണ്ട്